വയനാട്ടിലെ ഏറ്റവും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണം എന്നു വച്ചാൽ നമ്മൾ വാഴേൻ്റെ കൂമ്പ് എടുക്കുന്നപോലെ നമ്മൾ ഇല്ലി ഇല്ലിക്കാടില്ലേ മുളയുടെ കൂമ്പ് എടുത്തിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കും അത് കുനുകുനാ ചെറുങ്ങനെ അരിഞ്ഞിട്ട് അത് വെള്ളത്തിലിട്ട് അതിൻ്റെ മട്ട് ഊറ്റി കളഞ്ഞിട്ട് സാധാരണ പോലെ നമ്മൾ വറവിലേക്ക് ഇടും കടുകിലേക്കിടും വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പേരിപോലെ അപ്പോൾ അത് ചോറിനൊക്കെ കൂട്ടാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് മാത്രമല്ല നല്ല ഗുണമുള്ളതാണ് നല്ല ഔഷധ ഗുണമുള്ളൊരു ഒരു വിഭവം കൂടിയാണ് ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റാണ് നമ്മൾ വാഴക്കൂമ്പ് ഉപ്പേരി വച്ചതുപോലെ ഉണ്ടാവും പിന്നെ കാണുമ്പോൾ പക്ഷെ നല്ല ഔഷധം ഉള്ളതാണ് കാട്ടിലൊക്കെ പോയിട്ട് അതൊരു പ്രത്യേക ടൈമിലാണ് അത് എടുക്കുക നമ്മൾ അത് പച്ചയ്ക്കൊന്നും നമ്മൾ ഉപ്പേരിക്കൊക്കെ മുറിച്ചിട്ടു കൊണ്ടിരിക്കുമ്പോൾ കഴിക്കുന്നപ്പോലെ കഴിക്കാൻ ഒന്നും പാടില്ല നല്ല എന്താ പറയുക വേവിച്ചതിൻ്റെ മട്ട് മാറ്റിക്കളഞ്ഞിട്ടാണ് കഴിക്കാൻ പാടുള്ളു അത് നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് ഉപ്പേരിക്കൊക്കെ ഉപ്പേരിയായിട്ട് കഴിക്കുമ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ ഈ ഇവിടെ വയനാട്ടിൽ പ്രത്യേകം നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എന്നു വച്ചാൽ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കിട്ടുന്ന സ്ഥലം പിന്നെ എന്താണെന്നു വച്ചാൽ നമ്മളെ വയനാട്ടിൻ്റെ തനത് പാരമ്പര്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നത് അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയായിട്ട് ഒന്നുമല്ല അപ്പോൾ നമ്മളിപ്പോൾ അധികവും നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്നു വച്ചാൽ ആ നാലാം മൈൽ എന്നൊരു സ്ഥലമാണ് അവിടെ ഫുഡ്ബേ എന്നു പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നല്ല ഫുഡാണ് കിട്ടുന്നത് അടിപൊളി ടേസ്റ്റാണ് പക്ഷെ തനത് പാരമ്പര്യം ഒന്നും കിട്ടുമോയെന്ന് എനിക്കറിയില്ല പിന്നെ സാധാരണ നോർമൽ ഫുഡാണ് പിന്നെ അങ്ങനെ കിട്ടണമെങ്കിൽ എന്നൂർ എന്നു പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഫുഡ് ഈ വയനാട് സ്പെഷ്യൽ അതായത് ഇവിടുത്തെ കിട്ടുന്ന തരത്തിലുള്ള ഭക്ഷണം കിട്ടുന്നൊരു സ്ഥലം എന്നൂർ എന്നു ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെയാണെനിക്ക് അറിയാൻ പറ്റിയത് പോയി കഴിച്ചിട്ടില്ല തനത് പാരമ്പര്യം അതായത് അവരെ നമ്മളെ ജില്ലയുടെ എല്ലാ രീതിയും അതായത് തനത് പരമ്പരാഗത വിഭവങ്ങൾ കിട്ടുന്ന ഒരു സ്ഥലമാണെന്ന് കേട്ടിട്ടുണ്ട്